ഹലോ ഇത് സുരേന്ദ്രൻ എന്ന ഡ്രൈവറല്ലെ സംസാരിക്കുന്നത് എന്റെ പേര് അബിൻ ജോൺ വർഗ്ഗീസ് എന്നാണ് ഞാൻ താങ്കളുടെ ക്യാബ് കുറച്ചു നേരം മുമ്പ് ഓഡർ ചെയ്യുകയുണ്ടായി ഞാനി മുൻപ് ഓഡർ ചെയ്ത സ്ഥലത്തു നിന്ന് ചില കാരണങ്ങളാൽ എനിക്ക് വേറെയൊരു സ്ഥലത്തേക്കു പോകേണ്ടി വന്നു അപ്പോൾ എന്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ പറയാൻ വേണ്ടിയാണ് ഞാൻ താങ്കളെ വിളിക്കുന്നത് ഞാൻ മുൻപ് ഓഡർ ചെയ്തിരുന്നത് പുതുപ്പള്ളിക്കടുത്തുള്ള കോട്ടയം എന്ന സ്ഥലത്തു നിന്ന് ഉള്ളിലോട്ടുള്ള ഏറ്റുമാനൂർ എന്ന ഗ്രാമത്തിലോട്ടുള്ള വഴിയാണ് ഞാൻ മുൻപ് ബുക്ക് ചെയ്തിരുന്നത് എന്നാൽ എനിക്ക് ഇപ്പോൾ ക്യാബ് വേണ്ടിയത് ചങ്ങനാശ്ശേരി എന്ന സ്ഥലത്ത് ഏറ്റുമാനൂർ എന്ന ഗ്രാമത്തിന്റെ ഉള്ളിലായിട്ടുള്ള

ഇടയിലൂടുള്ള വഴിയിൽ കയറി ഒരു റബർ തോട്ടം കാണാവുന്നതാണ് ഈ റബർ തോട്ടത്തിന്റെ സൈഡിലൂടെയുള്ള വഴിയിൽക്കൂടി ഒരു പത്ത് കിലോ മീറ്റർ പോകു ക അങ്ങനെ പത്ത് കിലോ മീറ്റർ പോയ ശേഷം നിങ്ങൾക്ക് ചങ്ങനാശ്ശേരിക്കടുത്തുള്ള വാഴപ്പിള്ളി എന്ന സ്ഥലത്ത് ഇതെന്നാണ് അങ്ങനെ വാഴപ്പിള്ളി എത്തിയ ശേഷം അവിടെ പെരുന്ന എന്ന സ്ഥലം കാണാവുന്നതാണ് ആ പെരുന്ന എന്ന സ്ഥലത്തു നിന്ന് യൂ ടേണെടുത്ത് നിങ്ങൾ തോട്ടയ്ക്കാ എന്ന സലത്ത് എത്തേണ്ടതാണ് അങ്ങനെ തോട്ടക്കാടെന്ന സ്ഥലത്തെത്തി തോട്ടക്കാട് മലങ്കോട്ട കുരിശ്ശടി എന്നു പറയണ സ്ഥലമുണ്ട് ഈ മലങ്കോട്ട് കുരിശ്ശടി ഇരിക്കുന്നത് ഇരവുചിറ എന്ന സ്ഥലത്തിനടുത്താണ് ഈ ഇരവുചിറ എന്ന സ്ഥലത്തേക്ക് വരിക ഇരവുചിറ എന്ന സ്ഥലത്തേക്കു വന്ന ശേഷം അവിടെ നിന്ന് ഓട്ടോ ഡ്രൈവർമാരോടാരോടെങ്കിലും മലങ്കോട്ട കുരിശ്ശടിക്കുള്ള വഴി ചോദിച്ച് ആ വഴി വരിക ആ വഴി വരേണ്ട വഴി സ്നേഹാലയത്തിന് പോ പോകുന്ന വഴി സ്നേഹാലത്തിനു പോകാതെ ഇടത്തോട്ട് കിടക്കുന്ന വഴി ആ നേരെ വരിക നേരെ വരുമ്പോൾ ഒരു കയറ്റം കാണും പുതിയ വീടുകളൊക്കെക്കാണും ആ അവിടെ നിന്ന് മുൻപോട്ടു വന്ന ശേഷം ഒരു നാല് വീടെടത്തേ സൈഡിൽക്കാണാം ഈ നാല് വീടും കഴിഞ്ഞ ശേഷം ഒരു തെങ്ങ് ഇടത്തേ വശത്ത് കാണാൻ സാധിക്കുന്നതാണ് ആ തെങ്ങ് കാണുന്ന അവിടെ നിന്ന് ഇടത്തോട്ട് താഴോട്ട് കിടക്കുന്ന വഴി നേരെ ഇറങ്ങുവാണെങ്കിൽ എന്റെ വീട്ടിലോട്ടാണ് വരുന്നത് വിന്നെ വഴിക്ക് തൊട്ടു മുമ്പ് ഒരു വീടും കൂടിയുണ്ട് രണ്ടാമത്തെ വീടാണ് എന്റെ വലത്തേ സൈഡിൽ രണ്ടാമത്തെ വീട്